ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺമ്പത്തി ഒൻപത് നവംബർ പതിനാല് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്